എനിക്ക് ദക്ഷിണേന്ത്യൻ ഫുഡാണ് ഏറ്റവും ഇഷ്ടം നമ്മുടെ നാട്ടില് നമ്മുടെ കർണ്ണാടക തമിഴ്നാട് കേരളമൊക്കെ വരുന്നതാണ് ദക്ഷിണേന്ത്യൻ ഭാഗം ഉത്തരേന്ത്യ നമുക്ക് പിന്നെ നമുക്ക് മഹാരാഷ്ട്ര ആ ഭാഗത്തോട്ടൊക്കെ പോവും അതുകൊണ്ടെനിക്ക് ഉത്തരേന്ത്യ ഫുഡ്ഡല്ല എനിക്ക് ദക്ഷിണേന്ത്യൻ ഫുഡ്ഡ് തന്നെയാണ് കാരണം നമ്മൾ ഈ ചോറും സാമ്പാറ് രസം ഇതൊക്കെ കഴിച്ച് വളർന്നിട്ട് എനിക്ക് ഈ ഈ അവരുടെ ചപ്പാത്തി ചൗവ്വൽ അങ്ങ അവരുടെ നീളമുള്ള അരിയിലൊന്നും ചോറ് കഴിക്കുന്നതില് താല്പര്യമില്ല എനിക്ക് നമ്മുടെ നമ്മുടെ കുറച്ച് കുത്തരിച്ചോറ് സാമ്പാറ് പുളിയിഞ്ചി രസം പിന്നെ മോര് പിന്നെ കൂട്ടുകറി അവിയില് പച്ചടി കിച്ചടി അങ്ങനെയുള്ള സാനങ്ങളൊക്കെ കൂട്ടിക്കഴിക്കാനാണ് എനിക്കിഷ്ടം അതാണ് കൂടുതലും ടേസ്റ്റി അതാണ് അവരുടേതെന്ന് നോക്കുമ്പൊൾ ടാല് വരും പിന്നെ കുറേ പലതരത്തിലുള്ള ചപ്പാത്തി വരും ചപ്പാത്തി എനിക്കിഷ്ടമല്ലാത്തൊരു ഫുഡ്ഡാണ് ചപ്പാത്തി നമ്മ നമ്മുടേതിൽ നിന്നു വ്യത്യാസമായിട്ടുള്ളൊരു രീതിയാണ് എനിക്ക് നമ്മുടെ കേരളം കഴിഞ്ഞിട്ട് ഒരു ഫുഡ്ഡും കഴിക്കണ എനിക്കിഷ്ടവല്ല നമ്മടെ കേരളത്തിലെ ഫുഡ്ഡാണ് എനിക്ക് ഏറ്റവും അമൃത് പോലെ നമുക്കിങ്ങനെ മധ്യ എന്താ പറയുക ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യില്ലെ അത് നമുക്ക് ദക്ഷിണേന്ത്യൻ ഫുഡ്ഡ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ദക്ഷിണേന്ത്യയെന്ന് പറയുന്നത് ഞാൻ കേരളത്തിലെ മാത്രമാണ് പറയുന്നത് എനിക്ക് കേരളത്തിലെ ഫുഡ്ഡ് മാത്രമാണ് പറ്റുകയുള്ളൂ എനിക്ക് ചൈനീസ് ഫുഡ്ഡോ അങ്ങനെയുള്ള ഫുഡൊന്നും ഞാൻ കഴിക്കത്തില്ല കേരളത്തിലെ ഫുഡ് മാത്രമാണ് എനിക്കിഷ്ടം